എനിക്ക് ഇഷ്ടപ്പെട്ട പത്രം അതെന്നാ മീൻസ് മാതൃഭൂമി ദീപിക പിന്നെ എന്നാ ഹിന്ദു ഹിന്ദു പിന്നെ ടൈംസ് അത് ഇംഗ്ലീഷിലാ അപ്പോൾ അതൊക്കെ കുറച്ച് വായിക്കാറുണ്ട് മാഗസീനിലാണെങ്കിൽ ചില മാഗസീന്ണ്ട് സിനിമാനെപ്പറ്റി സിനിമനെപ്പറ്റി മാഗസിൻ വരാറുണ്ടല്ലോ അപ്പം അത് അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ കാരണം മീൻസ് അത് മാതൃഭൂമി ഓരോരോ പത്രത്തിൽ ഓരോരോ മാറ്റങ്ങളുണ്ടാവും ഓരോരോ കവി ഓരോരോ എഴുത്തുക്കൾ മാറ്റം ഉണ്ടാവും മാറ്റങ്ങളുണ്ടാവും ഇപ്പം ഇപ്പം ഞാൻ ഒരു പത്ര വേറൊരാളല്ലല്ലോ അതേ സെയിം അല്ലല്ലോ സെയിം ആയിട്ടില്ലല്ലോ ആ പത്രം എഴുതുന്നത് അപ്പം കുറച്ച് കുറച്ച് മാറ്റങ്ങളുണ്ടാവുമല്ലോ ഒരു ആ പത്രത്തിലാണെങ്കിൽ കുറേ രസകരമായ ഇതുണ്ടാവും ഓരോരോ വാക്കുകൾ അപ്പോൾ കുറേ പേർ ഈ എഴുത്താറ് എഴുത്താളക്കെ അതൊക്കെ കുറേ കുറേ ചെറുകഥ ആ ന്യൂസ് പേപ്പറില് ആ ഒരു ഇപ്പുറത്തെ സൈഡിലാക്കിയൊരു ചെറിയ ചെറിയ കഥകളക്കെ ഉണ്ടാവും അപ്പം അതുപോലെ അതുപോലെത്തന്നെ അത് ഒരു നമുക്ക് വായിക്കാനൊരു രസകരമായിരിക്കും പിന്നെ അടുത്ത് നമ്മളിപ്പോൾ ഒരു ന്യൂസ് പേപ്പറ് തന്നെ ഒരു ചെറിയ കഥകണ്ടു ഒരു ചെറിയ കഥ കണ്ടു അത് കണ്ടിട്ട് അത് വായിച്ചു വായിച്ചിട്ട് അടുത്ത ദിവസം ആയി ആ കഥയിലെ അടുത്ത സംഭവം എന്നാ നടന്നത് അതൊക്കെ അപ്പോൾ അപ്പോൾ ഓരോരോ ഒരാളുടെ എഴുത്തിൻ്റെ ഒരു ഇത് എനിക്കിഷ്ടപ്പെട്ടത് ഇപ്പം ഞാൻ മാഗസീനില് അങ്ങനെയാണ് ചില സിനിമ സിനിമ സിനിമയ്ക്ക് ആ നടിന് ഇങ്ങനെ പറ്റി ആ നടിനെ അങ്ങനെ അങ്ങനെയായി പറ്റിയെന്നൊക്കെ വരില്ലേ അപ്പോൾ അങ്ങനെ മാഗസീനിൽ വരുന്നത് ഓരോരോ രസകരമായ വിഷയങ്ങൾക്കും ശീലങ്ങൾക്കും ഇപ്പം ഓരോരോ രസകരമായ ശീലങ്ങൾക്കുമാണല്ലോ അപ്പം ചെയ്യുന്നതും അതിന് അത് രസകരമാണ് പിന്നെ ഓരോരോ എഴുത്തുകാർ എഴുതുന്നതാണ് എനിക്ക് എഴുത്തുകാർ എഴുതുന്നതാണ് ആ പത്രത്തിൽ വായിക്കാനും ഇഷ്ടപ്പെട്ടതും എല്ലാം ചെയ്തത് അപ്പോൾ അതുപോലെത്തന്നെ എന്തിനാ കാരണം എന്ന് വെച്ചാൽ അതാ ആ ഒരു ഒരു പത്രം എഴുതുന്ന കാര്യത്തിൽ ഒരു പത്രം എഴുതിയ കാര്യത്തിൽ എഴുതുന്ന എഴുതുന്ന കാരണങ്ങൾ കാരണം എങ്ങനെയാണെന്നോ നല്ല രസകരമായി എഴുതുന്നതും പിന്നെ ആ പത്രം ആൾക്ക് പത്രം വായിക്കുന്ന ആൾക്ക് ഇതുമാതിരി നല്ല അടുത്ത് വായിക്കാനൊരു ധൃതികൊണ്ടും വായിക്കാനൊരു ഇഷ്ടം കൊണ്ടാണ് വായിക്കാനൊരു ഇഷ്ടം വരുലോ അതുകൊണ്ട് വായിക്കാനൊരു ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഈ പത്രം വായിക്കാനും മാഗസിൻ വായിക്കാനും ഓരോരോ എഴുത്തിൻ്റെ ഇതായിരുന്നു എന്ന് നോക്കാം